മീൻ പിടിക്കാൻ നല്ല രസമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് മീൻ പിടിക്കുന്നത് മറ്റ് ജോലിയെ അപേക്ഷിച്ചു നമ്മൾക്ക് ഇഷ്ട്ടമുള്ള സമയത്ത് നമുക്ക് വല്ല ജോലിക്ക് മീൻ പിടിക്കാൻ പോകാം മറ്റ് ജോലിയെ പോലെ ഇന്ന സമയത്തൊന്നും പോകണ്ട നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാം നമുക്ക് അവരോടൊപ്പം വേണമെങ്കിൽ പോവാം ഞാൻ കൂടുതലും പോവുക കൂട്ടാരോടൊപ്പമാണ് അതാവുമ്പോൾ നല്ല രസം പിന്നെ ഓരോരോ മീൻകൂട്ടവും നമുക്ക് ഓരോരോ സുഖമാണ് ഇങ്ങനെ ഓരോ മീൻ പിടിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കൂടും അതേപോലെ നല്ല രസമാണ് മറ്റു ജോലിക്കാണെങ്കിൽ ഇത്ര സമയത്ത് നമ്മൾ പോയി ഇത്ര ശമ്പളം നമുക്ക് കിട്ടുന്ന പോലെയാണ് പക്ഷെ മീൻ പിടിക്കുന്നത് അങ്ങനെ അല്ല ഇഷ്ടമുള്ള സമയത്ത് പോവാം മീൻ പിടിക്കാം നമുക്ക് അതെടുക്കാം വിൽക്കാം ഇതേപോലെയൊക്കെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാം അതേപോലെ മീൻ പിടിക്കുന്ന കുറേ രീതികൾ ഉണ്ട് അതിലൂടെ നമുക്ക് കുറേ മീൻ പിടിക്കുക മീൻ പിടിക്കാം അതേപോലെ കുറേ ആൾക്കാർക്ക് കച്ചവടം ആക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം ഇതേപോലെ മറ്റുള്ള ജോലി പോലെ അല്ല എല്ലാ ദിവസവും പോകണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം ഇഷ്ടമുള്ള മീൻ പിടിക്കാം അങ്ങനെയൊക്കെ ആണ് മറ്റു ജോലികൾ അപേക്ഷിച്ചു എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് ഇതാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് മീൻപിടുത്തം എനിക്ക് വളരെ ഇഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ആണെങ്കിൽ നല്ല രസമാണ് അവരുടെ കഥയും പറഞ്ഞു മീൻ പിടിക്കാം നല്ല രസമാണ് നല്ല രസം